ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ ദീപാവലി ശ്രീകൃഷ്ണ ജയന്തി ക്രിസ്മസ് ഈസ്റ്റർ അങ്ങനെയൊക്കെ ഉള്ള പ്രധാനപ്പെട്ട ഉത്സവങ്ങളായിട്ട് വരുന്നത് പിന്നെ അവധി ദിനങ്ങൾ സെക്കൻഡ് സെക്കൻഡ് ഒക്ടോബർ ഗാന്ധി ജയന്തി ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനം ജനുവരി ഇരുപത്താറ് റിപ്പബ്ലിക്ക് ദിനം ഇതൊക്കെയാണ് അവധി ദിനങ്ങൾ ഉള്ളത് അതിൽ കൂടുതലൊക്കെയുണ്ട് പക്ഷെ നമ്മൾ കൂടുതലായിട്ട് ആഘോഷിക്കുന്നന്നത് എന്ത് ദീപാവലിയാണ് ദീപാവലിയിൽ ആൾക്കാർ ഇന്ത്യയിൽ കേരളത്തിനു പുറത്ത് ഇപ്പോൾ നല്ല നല്ല രീതിയിൽ തന്നെയാണ് ദീപാവലി ആഘോഷി ത് പത്തു ദിവസത്തെ ഉത്സവമായിട്ട് നല്ല രീതിയിൽ ആണ് ആഘോഷിക്കുന്നത് പിന്നെ ദസ്റാഘോഷവുമുണ്ട് പൂജാ ഹോളിഡേയ്സ് ഇതെല്ലാം അവർ നല്ല രീതിയിൽ ഈ കേരളത്തിനു പുറത്തുള്ളതാണ് കേരളത്തിലുമുണ്ട് എന്നാലും കേരളത്തിനു പുറത്താണ് ഇത് കൂടുതൽ ഉള്ളതായിട്ടുള്ളത് പിന്നെ അവധി ദിവസങ്ങളിലൊക്കെ സ്കൂളുകളിൽ പതാക ഉയർത്തൽ ഗവൺമെന്റ് സ്ഥാപനം പതാക ഉയർത്തലൊക്കെ നടത്തുന്നു പിന്നെ അതല്ലാതെ പിന്നെ കുഞ്ഞുങ്ങളുമൊത്ത് അവധി ദിവസങ്ങളിലൊക്കെ പുറത്തു പോകാൻ കിട്ടുന്നത് അപ്പോൾ പുറത്തു പോകാൻ പറ്റും രണ്ട് മൂന്ന് ദിവസമൊക്കെ അടുപ്പിച്ച് അവധി ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പുറത്തു പോകുന്ന ഒരരു അവസരമാണ് ഇപ്പോഴത്തെ രീതിയിലെല്ലാം അതു തന്നെയാണ് അവധിക്ക് ശരിക്ക് ആഘോഷിക്കാറുണ്ട് എന്താ ഒന്നല്ല രണ്ട് അവധിയൊക്കെ കിട്ടി കഴിയുമ്പോൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് പുറത്തു പോയി അവർ കുഞ്ഞുങ്ങൾ കാണാ കാണാത്ത സ്ഥലങ്ങൾ അവിടെയൊക്കെ പോയി കാണാറുണ്ട് പണ്ട് ഇത്തിരി ഇരുന്നല്ല ആൾക്കാർ കുറേയൊക്കെ ഇതായിട്ടുണ്ട് പുറത്തു പോകാനൊത്തിരി താൽപ്പര്യമുണ്ട് വീട്ടിൽ തന്നെ ഇരിക്കത്തില്ല അവധി ദിവസങ്ങളൊക്കെ ശരിക്ക് ആഘോഷിക്കാറുണ്ട് അപ്പോൾ ഉത്സവത്തിൽ പിന്നേ അമ്പലത്തിൽ പോകേണ്ടവർ അമ്പലത്തിൽ പോകും പള്ളിയിൽ പോകുമ്പം ക്രിസ്മസ് അങ്ങനെയുള്ള ദിവസത്തിൽ പള്ളിയിൽ പോകും അങ്ങനത്തെയൊക്കെ ആഘോഷങ്ങളിൽ ആൾക്കാർ ഏർപ്പെടാറുണ്ട് പിന്നേ എന്താ പിന്നെങ്ങനെയൊക്കെയാണ് ഓരോ ആഘോഷ ഓരോ അവധി ദിനങ്ങളിലും ഓരോരുത്തരുടേതായ ഓരോ ഓരോ മതവിഭാഗത്തു നിന്നും ഇതനുസരിച്ചാണ് ദീപാവലിയാണെങ്കിൽ ദീപാവലിയുടെ പക്ഷെ അതിപ്പം എല്ലാവർക്കും ദീപാവലി ഗിഫ്റ്റ്കളൊക്കെ കൈമാറി സ്വീറ്റ്സ് കൈ മാറി അത് ജാതിമതഭേദമെന്യേ എല്ലാവർക്കുമുണ്ട് ഗിഫ്റ്റും സ്വീറ്റ്സ് ഒക്കെയുണ്ട് അതൊക്കെ കൊടുത്ത് അങ്ങനെ ദീപാവലി ആഘോഷിക്കും പിന്നെ ക്രിസ്മസ് ആണെ കേക്ക് വിതരണം പിന്നെ റംസാന് പ്രധാനപ്പെട്ട ഒരാഘോഷം ദേശീയ ആഘോഷം റംസാനും അതിൻ്റെ ആ സമയത്താണെങ്കിലും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രൂട്ട്സ് അവർക്കുള്ള കാര്യങ്ങൾ നോയം അവരുടെ നൊയമ്പ് തുറക്കുന്ന സമയത്ത് ഫ്രൂട്ട്സ് അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും സപ്ലൈ ചെയ്യും അതു നല്ല ഇതാണ് ആഘോഷങ്ങളൊക്കെ നല്ല രീതിയിലാണ് നടക്കുന്നത് ഇപ്പേറ്റവും വലിയ ആഘോഷങ്ങൾ റംസാൻ ഓണം ഓണം കേരളത്തിൻറ്റേതാണ് പിന്നെ ഓണം ഗൾഫിൽ ആഘോഷിക്കുന്നവരുണ്ട് നമ്മളുടെ മലയാളികളൊക്കെ ഇപ്പോൾ എല്ലാ നാട്ടിലും ഉള്ളത് കാരണം ഓണം അവരുടേത് അവരുടേതായ രീതിയിൽ അവരവിടെ ആഘോഷിക്കാറുണ്ട് അവധി ദിവസങ്ങളിലൊക്കെ ഇതൊക്കെയാണ് എല്ലാവരും തന്നെ ഇപ്പോൾ പുറത്തു പോകാറാണ് പതിവ് ഓറ് കുഞ്ഞുങ്ങളുമൊത്ത് ഔട്ടിങ്ങ് പോയി ഭക്ഷണം കഴിച്ച് ബീച്ചിൽ പോയി അങ്ങനെയൊക്കെ കാര്യങ്ങൾ ആൾക്കാർ ചെയ്യാറുണ്ട് അവധി ദിനങ്ങൾ ആൾക്കാരിപ്പോൾ ആഘോഷിക്കാറുണ്ട്